എൻ്റെ പ്രിയപ്പെട്ട ആയോധനകലയെന്നു പറയുന്നത് കരാട്ടെയാണ് അതിൻ്റെ പ്രിയപ്പെട്ട കലാകാരനെന്നു വെച്ചാൽ ജാക്കിച്ചാൻ എന്ന മഹാപ്രതിഭ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആയോധന കലയോടുള്ള സ്നേഹവും ബഹുമാനവും അതുപോലെത്തന്നെ അതിലുള്ള സ്കില്ല് കാണുമ്പോൾത്തന്നെ നമുക്കേറെ പ്രിയപ്പെട്ടതായിമാറും അദ്ദേഹത്തോടുള്ള ആരാധനയും കൂടും പിന്നെ എന്തു ചെയ്യുമ്പോഴും അതിനോടുള്ളൊരു കമിറ്റ്മെൻ്റോടുകൂടി കാണൂന്നൊരു കലാകാരൻ കൂടിയാണദ്ദേഹം അതുകൊണ്ടുതന്നെ ആയോധനകലയോട് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് താല്പര്യവുമാണ്